ഞങ്ങൾ സാധാരണ മാവേലി സ്റ്റോറിൽക്കാണ് പോവൽ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാതും കിട്ടും പിന്നെ അരി പഞ്ചസാര ഉഴുന്ന് പരിപ്പ് കടുക് ജീരകം ഉലുവ പൊടികൾ കായം പിന്നെ സാമ്പാർ പൊടി ചിക്കൻ മസാല സോപ്പ് ചന്ദനത്തിരി എണ്ണ എല്ലാതും കടല പരിപ്പ് മൺപയർ എല്ലാതും നല്ല സാധനങ്ങളാണ് അവിടുന്ന് തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങൽ അരിക്ക് ഇപ്പോൾ ഇരുപത്തൊമ്പത് രൂപയാണ് ആദ്യം ഇരുപത്തഞ്ചായിന്നു ഇപ്പോൾ ഇരുപത്തൊമ്പത് രൂപക്കാണ് ഒരു കിലോ അരി അപ്പം അവിടുന്ന് തന്നെ അരി വാങ്ങൽ പിന്നെ കടല പയർ വർഗ്ഗങ്ങൾക്കൊക്കെ ലാഭം തന്നെയാണ് എല്ലാതും പിന്നെ പാക്കറ്റുകളിലും സേമിയം പാൽപ്പൊടി എല്ലാ സാധനങ്ങളും ഉണ്ട് മല്ലി മുളക് ചെറുപയർ വൻപയർ കടല രണ്ട് സൈസ് വെള്ള കടലയും ഉണ്ട് മറ്റേ കടലയും ഉണ്ട് പിന്നെ സോപ്പുകൾ പല ഇതും ഉണ്ട് മേൽ തേക്കുന്നത് ഉണ്ട് അളക്കുന്നത് ഉണ്ട് സോപ്പും പൊടി എല്ലാതും ഞങ്ങൾ അവിടുന്ന് തന്നെയാണല്ലോ സാധനങ്ങളും വാങ്ങൽ പാത്രം കഴുകുന്നത് പാത്രം കഴുകാനുള്ള ചണ്ടി മുതൽക്ക് ഞങ്ങൾ മാവേലി സ്റ്റോറിൽ നിന്നാണ് മേടിക്കൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോകും വാങ്ങാൻ ഇനി ഇപ്പം നാളെ പോവാൻ നിൽക്കുകയാണ് എല്ലാ സാധനങ്ങളൂം വാങ്ങുന്നുണ്ട് നല്ല ലാഭമാണ് ഇവിടെ അടുത്ത് തന്നെയുണ്ട് എല്ലാതും വാങ്ങി പോരും